ബാങ്ക് ലോൺ മാനേജർ ആണോ നമുക്കൊരു ലോൺ എടുക്കാൻ വേണ്ടിയാണേ നമുക്ക് നമ്മളൊരു കാർ എടുക്കാൻ വേണ്ടിയാണ്

നമ്മൾ ഹ്യുണ്ടായിൻ്റെ ഷോറൂമിൽ നോക്കാം എന്ന് വെച്ചിട്ടാണ് മ് അപ്പോൾ നമുക്ക് പിന്നെ ഏതൊക്കെ വണ്ടിയാണ് ഉള്ളത് നമുക്കൊരു സിക്സ്റ്റീൻ ലാക്സ് ഒക്കെ ആ പോവും സിക്സ്റ്റീൻ ലാക്സ് വരെ മ് ആ അത്രേത്തിക്കെത്രയാണ് റേറ്റ് എങ്ങനെയാണ് വരുന്നത് ട്വന്റി ഫൈവ് വരുന്നുള്ളൂ അല്ലേ ആ ആ അപ്പോൾ നമുക്ക് ലോൺ ഇട്ടിട്ട് എടുക്കാനാണേ ഇല്ല ഇങ്ങിനെയെന്തെങ്കിലും മതി ഹ്യൂണ്ടായിൻ്റെ എന്തെങ്കിലും മതി മ് ആണല്ലേ ആ ആ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ റെഡി ആവുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നേ മ് അങ്ങനെ ആണല്ലേ ആ ഹാ ഹാ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നാൽ അത് റെഡി ആക്കി തരുവാണെങ്കിൽ ലോണിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരു എച്ച് ആർ മാനേജർ ആണ് അപ്പം എനിക്ക് മാസം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഒരു വർഷത്തിൽ ഒൻപത് ലക്ഷത്തിനാല്പതിനായിരം റുപ്യ രൂപയോളം നമുക്ക് വരുമാനം വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് അതുകൊണ്ട് നിങ്ങൾ അതിനേക്കാൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പേടിക്കേണ്ട ആവശ്യമില്ല മ് ആ ആ ആ ആ ഹാ ഹാ ഓക്കെ ഓക്കെ ഓക്കെ ഓ ഉണ്ട് ഉണ്ട് ഉണ്ട് ഇല്ല ഇല്ല ഇല്ല ആ ഓക്കെ ആ ഓക്കെ ഓക്കെ വന്നാൽ മതിയല്ലേ അപ്പോൾ എപ്പോഴാണ് വരേണ്ടത് ഞാൻ പിന്നെ ഈവനിംഗ് വന്നാൽ മതിയോ നിങ്ങളെത്ര മണിവരെ ഷോ ഷോറൂം ഓൺ ആണ് ആ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ആ ഒരു ടൈം ആവുമ്പോൾ വന്നാൽ പോരേ മ് എന്നാൽ ഞങ്ങൾ എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം ആ ഓക്കെ